ആ അതെ പറയൂ ആ ഓക്കെ ആ ഓക്കെ അപ്പോൾ എന്തൊക്കെ എവിടെയാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നതെവിടെയാണ് ആ തൃശ്ശൂർ ഏ എന്നത്തേക്കാണ് ഡേറ്റ് ഒന്ന് പറയുമോ പതിനെട്ടാം തീയതി അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൽ കല്യാണം മുതൽ അതോ നമ്മൾ കല്യാണം മുതൽ അതോ രണ്ട് ദിവസത്തെ പരിപാടി ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഓവർനൈറ്റ് ബാച്ചലർ പാർട്ടി മുതൽ പിന്നെ അതുപോലെ തന്നെ റിസപ്ഷൻ വരെ ഉള്ള സംഭവങ്ങളാണ് നമ്മൾ പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് പ്ലാൻ ചെയ്യുന്നത് അത് മ് മൂന്ന് ദിവസത്തെ ആ ഓക്കെ ആ ഉം വെഡ്ഡിങ്ങ് റിസപ്ഷൻ ആ ആ ഓക്കെ ആ ഓക്കെ മാം ആ ഫുഡ് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചൈനീസ് ഫുഡ് ഇന്ത്യൻ ഫുഡ് ഫ്രഞ്ച് ഫ്രഞ്ച് ഫുഡ് അങ്ങനെയുള്ള പല ടൈപ്പ് ഉള്ള ഫുഡും നമ്മൾ നമ്മൾ ഒപ്പം ഇത് അങ്ങനെ ആക്കിയിട്ട് കൊടുക്കാറാണ് പിന്നെ നമ്മൾ നമ്മളോട് ചോദിച്ച് വരുന്ന കസ്റ്റമേഴ്സിൻറെ അടുത്ത് അവർക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അങ്ങനെയുള്ളത് നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട് പിന്നെ വെൽകം ഡ്രിങ്ക്സ് ആണെങ്കിലും അതെ പല ടൈപ്പ് മോക്ക്ടെയിൽസ് ആണെങ്കിലും അതെ ഫ്രഷ് ലൈംസ് ഹോട്ട് ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ആ പിന്നെ ഓക്കെ ഓക്കെ വെജ് ഓർ നോൺ വെജ് രണ്ടും ആവാം അല്ലേ ഓക്കെ ഓക്കെ പിന്നെ എന്താണ് പറയുക വെച്ചാൽ വെഡ്ഡിങ്ങിൻ്റെ അന്നത്തെ കാര്യങ്ങളൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ തന്നെയല്ലേ ഏൽപ്പിക്കുന്നത് ആ ഓക്കെ അപ്പോൾ നിങ്ങളുടെ കോസറ്റ്യൂമിനനുസരിച്ചുള്ള കളർ വെച്ചിട്ടാണ് നമ്മൾ തീം ഉണ്ടാക്കേണ്ടത് അല്ലേ കളറും കാര്യങ്ങൾ ഒക്കെ ഞാൻ പിന്നെ വേറൊരു നമ്പർ തരാം അതിൽ വിളിച്ചിട്ട് അസിസ്സുറ്റൻസുമായിട്ട് വിളിച്ചിട്ട് വർത്തമാനം പറഞ്ഞാൽ മതി പിന്നെ മ് പിന്നെ

ആ എൻറർടൈൻമെൻറ് ആയിട്ടുള്ള ഓക്കെ നമ്മൾ ഡി ജെ ഡി ജെ അറേഞ്ച് ചെയ്തു ചെയ്തുതരുന്നതാരിക്കും ഡി ജെ ഉണ്ട് പിന്നെ നമ്മൾ ബാച്ചലർ പാർട്ടി പറഞ്ഞല്ലോ അത് ബാച്ചലർ പാർട്ടിക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ഡ്രംസ് ആണെങ്കിലായിക്കോട്ടെ അങ്ങനെയുള്ള നമുക്ക് കുറച്ചു ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ പൂൾ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാച്ചലർ പാർട്ടിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ട് നടത്താൻ പറ്റുന്നതാണ് പിന്നെ ബാച്ചലർ പാർട്ടീൻ്റെ ടൈമിൽ നമുക്ക് ഫുഡും അവൈലബിൾ ആണ് ഫുഡും നമുക്ക് ചെറിയ രീതിയിൽ പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്സും നമുക്ക് നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്സും നമ്മൾ അതിനനുസരിച്ചുള്ളൊരു ആംബിയൻസിൽ നമ്മളൊരു നല്ല റെസ്റ്റോറൻറും നമ്മൾ ബുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ ചെയ്യുമോ അതോ നമ്മൾ ചെയ്യണോ

ക്യാഷ് എന്ന് പറയുമ്പോൾ മാം നമ്മൾ പറയുന്നത് ഒരു ഏകദേശം ഒരു വെഡ്ഡിങ്ങിൻ്റെ മാത്രം നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടു ആൻഡ് എ ഹാഫ് ലാക്കിൻ്റെ മുകളിൽ എന്തായാലും പോകും പിന്നെ ആ വെഡ്ഡിങ്ങ് മാത്രം നോക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാച്ചലർ പാർട്ടി പറഞ്ഞല്ലോ പിന്നെ ഹൽദി കാര്യങ്ങൾ അങ്ങനത്തെ സംഭവം വല്ലതുമുണ്ടോ ഹൽദിയുണ്ട് രാവിലെ ഓക്കെ ഓക്കെ അപ്പോൾ ഹൽദി കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ എമൗണ്ട് കുറച്ച് കൂടുന്നതാരിക്കും എന്തോക്കെപ്പോയാലും കുറച്ച് ഒരു ടെൻ ലാക്ക് ടെൻ ലാക്ക് എന്തായാലും വരുന്നതാരിക്കും മാം പിന്നെ നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളും എന്താണ് പറയുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിനനുസരിച്ച് അപ്പോൾ അതിനനുസരിച്ചു എന്തായാലും ടെൻ ലാക്ക് എന്തായാലും വരും ഫുഡും കാര്യങ്ങളുമെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ റെസ്റ്റോറൻറ് ബുക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയുണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് വെച്ചാൽ കല്യാണത്തിൻറെ അന്ന് നിങ്ങൾ നേരിട്ട് വന്നാൽ മതി ബാക്കിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്സും കാറ്ററിംഗ് അവിടെ നിൽക്കുന്ന വേണം എന്നുണ്ടെങ്കിൽ കല്യാണത്തിൻറെ വെഡ്ഡിങ്ങിൻ്റെ അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് വെൽകം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരേയും നമ്മൾ അറേഞ്ച് ചെയ്യിക്കുന്ന അറേഞ്ച് ചെയ്തിരിക്കുന്ന മാം നമ്മൾ എന്താണ് പറയുക ഇങ്ങനെ ഒപ്പം ഇങ്ങനെ മൂന്നാല് പരിപാടി ഒപ്പം ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ തേർട്ടി പെർസെൻറേജ് വരെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് മാം അപ്പം അപ്പം നമ്മൾ ഇതുതന്നെ ഉറപ്പിക്കുവല്ലേ ഓക്കെ ആ ഓക്കെ മാം പിന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതാരിക്കും കേട്ടോ ഓക്കെ